വലിയ അറിവില്ലാത്ത സമയത്ത് പ്രോജക്റ്റിനൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം പിഴകൾ വി വരാറുണ്ട് അതിന് എങ്ങനെയെങ്കിലൊക്കെ കണ്ട് ആ തെറ്റുകൾ എന്താണെന്നു മനസ്സിലാക്കി അതിനു നമ്മൾ മാറ്റുന്നു പിന്നെ പ്രായമാകുന്തോറും അങ്ങനെയുള്ള പിഴകൾ വഴി വരുന്നതു വളരെ കുറവാണ് പിന്നെ തിന്നുമ്പോളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും ത് അതിനു നമ്മൾ കുറി ചെറുതിൽ നമുക്ക് തെറ്റുകൾ വന്നാൽ അതിനു നമ്മൾ മാറ്റുന്നു പിന്നെ വലുതാകുന്തോറും ആ തെറ്റുകൾ നമ്മൾ വരുത്താറില്ല കഴിയുന്നതും കാരണം തെറ്റുകളിൽ നിന്നാണല്ലൊ നമുക്ക് ശരികളുണ്ടാകേണ്ടത് അപ്പോൾ കഴിയുന്നതും നമ്മൾ തെറ്റുകൾ വരുത്താതെ നമ്മൾ നോക്കുന്നു